ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ ആഹാരം ഓർഡർ ചെയ്ത കമ്പനിയുടെ ആപ്പിലോ വെബ്സൈറ്റിലോ സന്ദർശിക്കുക അങ്ങനെ സന്ദർശിച്ച ശേഷം ഇവിടെ ലോഗിൻ ചെയ്യേണ്ടതാണ് ലോഗിൻ ചെയ്യുവാനായി നമ്മുടെ ഫോൺ നമ്പർ അമർത്തുക ഫോൺ നമ്പർ അമർത്തിയ ശേഷം വൺ ടൈം പാസ് വേഡ് അഥവാ ഓ ടി പി വരുന്നതാണ് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് വരുന്ന ഓ ടി പി കൃത്യമായി നോക്കി അത് അമർത്തി കൊടുത്ത ശേഷം ലോഗിൻ ആവുന്നതാണ് അങ്ങനെ ലോഗിൻ ആയ ശേഷം നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിലേക്ക് പോവുക പ്രൊഫൈൽ സെക്ഷനിൽ പേയ്മെൻറ്റ്സ് ആൻഡ് റീഫണ്ട് എന്ന സെക്ഷനും ഓർഡർ ഹിസ്റ്ററി എന്ന സെക്ഷനും കാണാവുന്നതാണ് ഇതിൽ ഏതെങ്കിലുമൊരു സെക്ഷൻ തെരഞ്ഞെടുക്കുക നമ്മൾ ഓർഡർ ഹിസ്റ്ററിയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ അത് തെരെഞ്ഞെടുത്ത ശേഷം അവിടെ പെയ്മെൻറ്റ് സക്സസ്ഫുൾ ആണോ പെൻറ്റിങ്ങാണോ അത് ക്യാൻസൽഡ് ആണോ എന്ന് കാണി കാണിക്കുന്നതാണ് അങ്ങനെ നോക്കുന്ന പക്ഷം പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണ് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ നമ്മുടെ പെയ്മെൻറ്റ് നടന്നിട്ടുണ്ട് എന്നാണർത്ഥം ഇപ്പം അൺ സക്സസ്ഫുള്ളാണെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് നടന്നിട്ടില്ല പെൻഡിങ്ങാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് പക്ഷേ അവർക്കിതുവരെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ നമുക്ക് അങ്ങനെ നോക്കിയിട്ടും കൃത്യമായ വ്യക്തത കിട്ടാത്ത പക്ഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാങ്കിൻ്റെ വെബ് സൈറ്റിലോ ആപ്പിലോ സന്ദർശിക്കുക അവിടെയും ലോഗിൻ ചെയ്യുക നമ്മൾ ഫോൺ നമ്പർ അടിച്ച് കൊടുത്ത് വൺ ടൈം പാസ്സ്വേർഡ് വന്ന ശേഷം അത് കൃത്യമായി അടിച്ച് കൊടുത്തിട്ട് നമ്മൾ ലോഗിനാകുന്നതാണ് അങ്ങനെ അവിടുന്ന് ബാങ്ക് സമ്മറി അഥവാ ബാങ്ക് സ്റ്റേമെൻറ്റ് കൃത്യമായി നോക്കിയെടുത്ത് ശേഷം ബാങ്കിൽ നമ്മള് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നത് നമ്മള് സേവ് ചെയ്ത് വെക്കണം അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന ബാങ്ക് സ്റ്റെമെൻറ്റ് ആയി നമ്മൾ ഫുഡ് ആഹാരം ഓർഡറ് ചെയ്ത കമ്പനിയെ കമ്പനിയെ കമ്പനിയുമായി ബന്ധപ്പെടുക കമ്പനിയുടെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുന്ന ശേഷം അവരോട് സംസാരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടങ്കിൽ അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവർക്കയച്ച് കൊടുത്താൽ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളാകുന്നതാണ് വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അവരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്